ഞങ്ങടെ പ്രദേശത്ത് പാർട്ടികളും എല്ലാ പാർട്ടികളും ഉണ്ട് അതായത് ബിജെപി മാർകസ്റ്റ് പാർട്ടി യൂഡിഎഫ് പാർട്ടി എല്ലാ പാർട്ടികളും ഉണ്ട് നമ്മളെ അവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിപിഎം ആണ് ഭരിക്കുന്നത് അതായത് മാർകസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത് ഒരു ആദ്യമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പത്തെ ആൾക്കാരുടെ ഭരണം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കാര്യത്തിന് നമ്മൾ ഇപ്പം ഒന്ന് വിളിച്ചാ പോലും അവരൊന്നും വരാത്ത സാഹചര്യമാണ് ഉള്ളത് ഇപ്പം വല്യ കാര്യമായിട്ട് ഞാൻ ഇപ്പം ഞാൻ ആദ്യം മാർകസ്റ്റ് പാർട്ടിയിൽ എന്താ പറയാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ഇപ്പൊൾ എനിക്ക് ആ പാർട്ടിയിലേക്ക് പോകാൻ ഉള്ള ഒരു താല്പര്യം കുറവാണ് കാരണം എന്ന് വെച്ചാല് ഇപ്പഴത്തെ മുഖ്യമന്ത്രി ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എങ്കിലും പക്ഷെ ഇപ്പൊൾ അതിനകത് ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ മാറ്റം വരുത്തി പല പല പ്രശനങ്ങളാണ് ഉള്ളത് അവരാരും മാര്യാദക്ക് എന്താ പറയുക ജനങ്ങളെ എന്താ പറയുക ബുദ്ധിമുട്ടിച്ചു കൊണ്ടുള്ള ഭരണമാണ് ഇപ്പം നടക്കുന്നത് വലിയ കാര്യത്തിലൊന്നും അവര് എന്താ പറയുക സഹായിക്കുന്നൊന്നും ഇല്ല അപ്പൊൾ അതുകൊണ്ട് ഞാന് എന്ത് നമ്മുടെ നാട്ടിൽ ആണെങ്കിലും ഇതു തന്നെയാണ് അവസ്ഥ നമ്മുടെ റോഡ് റെഡി റെഡിയായി വരുമ്പോഴേക്കും അവര് എന്തെയ്യാ അവര് അവിടുന്ന് പൈസ വാങ്ങുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടാണ് റോഡ് റെഡിയാക്കുക പക്ഷെ ആ റോഡിൽ ഭയങ്കര ക്രമക്കേടാണ് ഉള്ളത് നമ്മുടെ അയിലൂടെ പോകുന്ന റോഡ് തന്നെ തിരുന്നെല്ലി എന്ന് പറയുന്ന സ്ഥലമാണ് പോകുന്ന റോഡാണെങ്കി തന്നെ ഫുള്ളു അബദ്ധമാണ് ഉള്ളത് അപ്പം നമ്മുടെ മെയിൻ ആയിട്ട് ഞാൻ ഇപ്പ എന്തെങ്കിലും ഒരു ആവിശ്യത്തിന് വിളിച്ചാ പോലും അവര് വരാത്ത ഒരു അവസ്ഥയാണ് വേറെ നമ്മൾ ഇപ്പോൾ വേറെ പാർട്ടിക്കാരെ വിളിക്കുവാണെങ്കിൽ അവര് വരും കാരണം അവര് ഭരണത്തിൽ ഇല്ലാത്ത ഒരു പാർട്ടി ആണെങ്കിൽ അവർ എന്തായാലും വന്ന് നമ്മളോട് എന്താ കാര്യങ്ങൾ ഒക്കെ ചോദിക്കും കാരണം എന്താ വെച്ചാല് അവരുടെ പാർട്ടിലേക്ക് നമ്മൾ ചേരാൻ വേണ്ടീട്ടാണ് ആ വരുന്നത് തന്നെ അപ്പ നമ്മുടെ പാർട്ടിക്കാര് തന്നെ ഇപ്പം വരാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്